ആ അതെ അതെ നമ്മള് ആ പറഞ്ഞുകൊള്ളൂ പറഞ്ഞുകൊള്ളൂ ആ നിങ്ങളുടേത് എവിടെയാണ് സ്ഥലം വരുന്നത് വാരാട്ടരി ആണല്ലേ ആ നമ്മുടെ നമ്മുടെ ഷോപ്പ് വരുന്നത് മഞ്ചേരി നെല്ലിക്കുത്തിനടുത്താണ്

അപ്പോള് അവിടെ നിങ്ങള്ക്ക് ഏതുതരത്തിലുള്ള ഫ്ലവറാണ് നിങ്ങള് ഉദ്ദേശിക്കുന്നത് ബഡ് ചെയ്ത തരത്തിലുള്ളത് അല്ലേ അപ്പോള് നിങ്ങള് ആ റേറ്റ് വരുന്നത് നിങ്ങള്ക്ക് ബഡ്ജറ്റ് എത്രയാണ് നിങ്ങളുടെ ആ നല്ലത് മതി അപ്പോള് ഒരു നാനൂറ് ആ റേറ്റിനാണ് നമ്മുടെയടുത്ത് വരുന്നത് ഓക്കെ അപ്പോള് നിങ്ങളൊന്ന് ഷോപ്പിലേക്ക് എന്തായാലും ഒരു വട്ടം വന്നുനോക്കണം പിന്നെ അതിൻ്റെ അതിൻ്റെ പരിചരണവും കാര്യങ്ങളുമൊക്കെ അറിയുമായിരിക്കുമല്ലേ നിങ്ങള്ക്ക് ഏത് ആ ആ ആ ആ ആ അത് വെയില് കൊള്ളുന്നത് നമ്മള് രാവിലത്തെ വെയില് കൊള്ളുന്ന സ്ഥലത്ത് അതായത് സുര്യന് ഉദിക്കുമ്പോള് രാവിലത്തെ വെയില് കൊള്ളുന്നയിടത്ത് കുഴപ്പമില്ല നട്ടുച്ചയുടെ വെയിലുണ്ടാകുമല്ലോ അങ്ങനെ ആ വെയില് പരമാവധി അവോയിഡ് ചെയ്യാൻ ശ്രമിക്കുക അത് അങ്ങനത്തെ സ്ഥലം നോക്കിയിട്ടുള്ള സജ്ജീകരണങ്ങള് ചെയ്യുക പിന്നെ

ആ ആ ഓക്കെ വാട്സപ്പ് ചെയ്യാം നല്ല മല്ലിയുണ്ട് പിന്നെ ചെമ്പകപ്പൂവ് അങ്ങനത്തെ ഐറ്റംസാണുള്ളത് നിങ്ങളത് വാങ്ങുമ്പോള് തന്നെ അതിൻ്റെ വളമിടുന്ന കാര്യങ്ങള് ശ്രദ്ധിക്കണം നമ്മള് നല്ല കടയില് നിന്ന് വളം വാങ്ങിയിട്ട് അദ്യം തന്നെ മണ്ണില് കുഴച്ചിട്ട് ആ വളം ഇവിടെത്തന്നെ കിട്ടും അ ഇടുക എന്നിട്ട് വെള്ളം നനയ്ക്കുമ്പോള് വെയില് ഇലയില് തട്ടാതെ വെയിലുണ്ടാകുമ്പോള് ഇലയില് തട്ടാതെ വെള്ളം നനയ്ക്കാൻ ശ്രമിക്കുക മറ്റേതാകുമ്പോള് ബഡ്ഡിങ്ങിൻ്റെ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും അത് ശരിയാകാറുണ്ട്

ഉണങ്ങിയാല് അത് ഉണങ്ങാന് തുടങ്ങുമ്പോള്ത്തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ അപ്പോള്ത്തന്നെ അതൊന്ന് കുറച്ചുകൂടി വെള്ളം ഒന്നുകൂടി ഒഴിച്ചുകൊടുത്താല് മതി ആ ആ ഓക്കെ ഓക്കെ ഞാന് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യൂ കടയിലേക്ക് വരിക